നമ്മുടെ നാട് നമ്മുടെ നാട് ഇന്ന് കുറേ പുരോഗമിച്ചെങ്കിലും ഇന്ന് കുറേ പ്രോഗ്രസ്സായിട്ടുണ്ട് എന്നാലും പണ്ടത്തെ പണ്ടത്തെ അതേ ഒരു രീതിയിൽ നമുക്ക് തുടർന്ന് പോവാൻ കഴിയണം അതായത് അതായത് ഒരു മാറ്റങ്ങളൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ മെഷീനിലും അങ്ങനെ കുറേ സാധനങ്ങൾ കുറേ മാറ്റമൊക്കെ ഉണ്ടാവും എന്നാലും പണ്ടത്തെ അതേ ഒരു രീതിയിൽ തന്നെ ഒരു ഒരു നാടൻ ശൈലി തന്നെ ഇപ്പോഴും തുടർന്ന് പോകുന്ന ഒരു സംഭവമാണ് ഇത് കൃഷി എന്നുള്ളത് ഈ ഒരു കൃഷി മനുഷ്യൻ്റെ ആദിമ ജീവിത മുതലേയുള്ള അത് ആദ്യമ മനുഷ്യ മുതയലേയുള്ളൊരു ജീവിതശൈലിയാണ് എന്ത് കൃഷി അതിപ്പോഴും നമ്മളെത്ര സയൻസും ബാക്കിയുള്ള കാര്യങ്ങളും മെഡിക്കല എന്തും എത്രക്കാനും പുരോഗമിച്ചിട്ടും ആ കൃഷി ഇപ്പോഴും അതേപോലെ അവിടെ എന്തു ചെയ്യുന്നുണ്ട് നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഒരു കൃഷി തുടങ്ങുമ്പോൾ അത് എങ്ങനെ തുടങ്ങണം എപ്പോൾ തുടങ്ങണം അതിനെക്കുറിച്ചൊന്നും നമ്മൾ അധികം ആൾക്കാർക്കും എന്തില്ല ഒരു കൃത്യമായ ധാരണ ഇല്ലാതെയാണ് അത് തുടങ്ങി അതുപോലെ തന്നെ കുറേ ആൾക്കാരെത് ഫ്ലോപ്പ് ആവും ചിലവർ എന്ത് ചെയ്യും കറക്റ്റ് എ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു മനസ്സിലാക്കി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്യുന്നത് എന്ത് ചെയ്യും ഒരു നല്ല രീതിയിലും ആയി വരും അപ്പം നമുക്ക് എങ്ങനെ നടണം നമ്മൾ എങ്ങനെ ഒരു കൃഷി തുടങ്ങണം എങ്ങനെ അതിനെ നോക്കി ഉണ്ടാക്കണം എന്നുള്ളതിനെ കുറിച്ചു നമുക്കൊരു ചെറിയ ഒരു ചെറിയ ഒരു ഔട്ട്ലുക്ക് നോക്കാം അപ്പം ഒന്നാമതായിട്ട് നമ്മൾ കാലാവസ്ഥയെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്തു ചെയ്യുന്നത് കൃഷിക്ക് കൃഷി തുടങ്ങേണ്ടത് ഈ ഭൂമിയുടെ താപനില അതേപോലെ തന്നെ എപ്പോഴാണ് മഴയുണ്ടാവുക സൂര്യപ്രകാശം എപ്പോഴാണ് ഉണ്ടാവുക അതൊക്കെ നോക്കിയിട്ടുമാണ് നമ്മൾ എന്തു ചെയ്യുകയാണ് കൃഷി തുടങ്ങാൻ ഇപ്പം ഈ ഉദാഹരത്തിന് വയൽക്കൃഷി ചെയ്യുമ്പോൾ മഴക്കാലം ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് അതേപോലെ തന്നെ ഉണക്ക നിലത്തുണ്ടാക്കുന്ന തീരം വെള്ളം വേണ്ടാത്ത ടൈമിൽ ഉണ്ടാക്കണ ഇതിന് ഏറ്റവും അനുയോജ്യ കാലം ആയ കാലം ഏതാണ് സ്വാഭാവികായിട്ടും വേനൽക്കാലമാണ് പിന്നെ മറ്റൊരു കാര്യമാണ് ഏറ്റവും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മണ്ണിൻ്റെ ഗുണനിലവാരം പരിശോധിക്കലാണ് ഈ മണ്ണ് ഒരു ഫേർട്ടിലേറ്ററുള്ള മണ്ണാണെന്നുള്ള നോക്കലാണ് എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള ഒരു സംഭവമാ ണ് മണ്ണിൻ്റെ പി എച്ച് വാല്യു പോഷകങ്ങൾ അതായത് നൈട്രജന് ഫോസ്ഫറസ് പൊട്ടാഷ്യം എന്നിവ പരിശോധിച്ചൊക്കെ ഏത് ഈ മണ്ണ് ഏത് തരം വിളകൾക്കാണ് ഏറ്റവും കൂടുതൽ യോജിക്കുക എന്നുള്ളത് നമ്മൾ എന്തു ചെയ്യണം നോക്കിയിട്ട് ഉറപ്പ് വരുത്തണം പിന്നെ മറ്റൊരു അനിവാര്യമായ കാര്യമെന്ത് ഇരിഗേഷൻ സിസ്റ്റം ആ ഭാഗത്തോട്ടുള്ള എങ്ങനെ നമ്മൾ വെള്ളമെത്തിക്കാൻ കൃഷിക്ക് ആവശ്യമായ വെള്ളം എത്തിക്കാനൊരു സംവിധാനം ഉണ്ടോ ഉള്ളത് എന്നത് അടുത്ത് തന്നെ അവർ കിണർ അല്ലെങ്കിൽ വലിയൊരു ടാങ്ക് വെറുതെ അല്ല ഒരു ചാൽ ഇതൊക്കെ ഉണ്ടാക്കുക എന്താണ് തീർത്തും അത്യാവശ്യമാണ് ഈ ഒരു ഇതിൽ പിന്നെ മറ്റൊരു കാര്യം എന്താണെന്നു വച്ചാൽ ഒരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വിളയാവണം ആ ടൈമിൽ ഉണ്ടാക്കണം അത് മഴക്കാലമാണെങ്കിൽ അതിനോട് യോജിച്ചു സമയത്ത് ഉണ്ടാവുമെന്ന് ഉറപ്പുള്ള എന്താണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ നടേണ്ടത് എന്നാൽ അതിന് നമ്മളെ അതിനനുസരിച്ചു അതുണ്ടാവുകയുള്ളൂ അതിൽ നിന്ന് നല്ല വിളകളൂം ഇത് കിട്ടുള്ളൂ അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ എന്തു ചെയ്യനുണ്ട് എങ്ങനെ നടണം എപ്പം നടണം ഇതൊക്കെ നമ്മൾ അന്ന് കുറേ പഠിക്കാനുണ്ട്